നെയ്ത്തും തുന്നലും എനിക്ക് ഒത്തിരിഷ്ടവാണ് കൂടുതലായി പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എംബ്രോയിഡറി വർക്ക് അത് ഞാൻ യൂട്യൂബ് വഴിയായി പഠിക്കുവാനായി അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഓരോന്നും ഓരോ ദിവസം സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്

ഫാഷൻ ഓരോ ഫാഷനുകളും നമ്മളാഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുവാന് നമുക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കുവാനും ഒക്കെ സാധിക്കും ചുരിദാറ് ചുരിദാറ് തയിക്കുമ്പോഴ് അതിൻ്റെ എംബ്രോയിഡറി വർക്കുകളെല്ലാം സ്വയമായി ചെയ്യുവാനും ഇതുവഴി നമുക്ക് സാധിക്കും സാരികള് കോട്ടൺ സാരികളെടുത്ത് അതിൽ വർക്കുകൾ ചെയ്യാന് നമുക്ക് നല്ല ഒരു വരുമാനം ഉണ്ടാക്കി എടുക്കുവാനും സാധിക്കും ഇവയൊക്കെ നമ്മുടെ ജീവിതത്തില് ചെറിയ ചെറിയ വരുമാനങ്ങളുണ്ടാക്കി നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ട് പോകാനും സാധിക്കും പരീക്ഷണത്തിലൂടെ ചെറിയ ചെറിയ പരീക്ഷണത്തിലൂടെയാണെങ്കിലും അപ്പം നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ജീവിതമാർഗമായി തീരും എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല നമുക്കിപ്പോള് ഒരു തയ്യൽ കടയിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഇരുന്ന് പഠിക്കേണ്ട ഒന്നും ആവിശ്യമില്ല നമ്മുടെ കൈയിലുള്ള മൊബൈലില് യൂട്യൂബിൽ നോക്കി അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പഠിക്കാം നമുക്ക് തെറ്റിപ്പോയാൽ ആരുടെയും പരാതി കേൾക്കണ്ടേ ആവശ്യമില്ല വീണ്ടും വീണ്ടും അത് നമ്മള് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നോക്കി പഠിച്ച് നമ്മൾ നന്നായി പഠിക്കുന്നത് ഒരു ചെയ്ത് നോക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്തായാലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തില് നമുക്ക് പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഒക്കെ സാധിക്കും ഒരു ഉടുപ്പ് തയ്ച്ച് വളരെ നന്നായി എംബ്രോയിഡറിയും അതിൻ്റെ വർക്കുകളെല്ലാം ചെയ്ത് നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടിക്ക് സമ്മാനമായി കൊടുക്കുക ആ ഉടുപ്പ് കണ്ട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ നമ്മളോട് പറയും അതുപോലെ തയ്ച്ച് തരാമോ അതുപോലെ വർക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമാകും നമ്മളങ്ങനെ പലർക്കും ചെയ്ത് കൊടുക്കും അങ്ങനെ അത് നമ്മുടെയൊരു ബിസിനസ്സായി മാറുകയും നമ്മുടെ ജീവിതത്തില് നമുക്ക് ചെറിയ വരുമാനങ്ങളുണ്ടായി കിട്ടുകയും ചെയ്യുന്നതാണ് സാധാരണയൊരു സാരി വാങ്ങി വർക്കുകളൊന്നുമില്ലാത്തൊരു സാരി വാങ്ങി നന്നായി വർക്ക് ചെയ്ത് നമുക്കിഷ്ടമുള്ളൊരു രീതിയില് യൂട്യൂബിൽ നോക്കി നല്ല ഭംഗിയായ രീതിയിൽ അതിൻ്റെ വർക്കുകൾ ചെയ്തിട്ട് നമ്മൾ തന്നെ അത് ഉടുക്കുക അത് കാണുന്ന പലർക്കും അതിഷ്ടപ്പെടും അപ്പോൾ ഇത് ചോദിക്കും ആരാണ് ഈ വർക്ക് ചെയ്തത് ഇത് ഞാൻ തന്നെയാണ് ചെയ്തത് നിങ്ങളെങ്ങനെ പഠിച്ചു ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരഭിമാനമുണ്ട് ആ കേൾക്കുന്നവർക്ക് അവർക്കും ഇതൊരു പഠിക്കണമെന്ന് ഒരാഗ്രഹം വരും അവർ പഠിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ

മുൻമ്പൊക്കെ ഒരു തയ്യൽക്കടയിൽ പോയി അവിടെ തയ്യൽ പഠിപ്പിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി ഒന്നോ രണ്ടോ മണിക്കൂർ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുവാനും അതുപോലെ തന്നെ ഒരോ അളവനുസരിച്ച് വെട്ടുവാനും ഒക്കെ പഠിക്കാൻ മാസങ്ങളോളം ഈ നടപ്പും അവരുടെ അടുത്ത് പോയി നമ്മള് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇതൊന്നും വേണ്ട നമുക്ക് എപ്പഴാണോ സമയമുള്ളത് ആ സമയമനുസരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ മൊബൈല് ഉപയോഗിച്ച് യൂട്യൂബിൽ നോക്കി നമുക്കിഷ്ടമുള്ള രീതിയില് അത് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്കെപ്പോൾ സമയമുണ്ടോ ആ സമയത്ത് നമ്മൾ ചെയ്യുക നമുക്ക് സമയം കുറവാണെങ്കിൽ അന്ന് ചെയ്യണ്ട ആരെയും കണക്ക് ബോധിപ്പിക്കണ്ടല്ലോ എന്തായാലും ഇങ്ങനെ യൂട്യൂബിൽ നോക്കി ഇവയൊക്കെ പഠിക്കുന്നത് വഴി ഒത്തിരി അമ്മമാർക്ക് അവരുടെ മക്കളെ സ്കൂളിലൊക്കെ വിട്ട് കഴിയുമ്പോള് ബാക്കി വരുന്ന സമയത്ത് ഇവയൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും ഇനിയും എത്ര സമയമാണ് നമ്മുടെ ജീവിതത്തില് വെറുതെ നമ്മൾ പാഴാക്കുന്നത് ആ പാഴാക്കുന്ന സമയമെല്ലാം ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എത്ര ചെയ്താലും മടുപ്പില്ലാത്ത ഒരു ജോലിയാണ് തുന്നൽ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഫാഷനുകൾ പഠിച്ചും ആ പഠിക്കുന്നത് പ്രാവർത്തികമാക്കിയും നന്നായി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ യൂട്യൂബിലൂടെ ഇവയെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് എനിക്ക് നന്നായി ചെയ്യുവാൻ സാധിക്കും യൂട്യൂബിൽ നോക്കി എല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്കൊരു നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു താങ്ക്യൂ